ആ ഇത് റെസ്റ്റോറൻറ്റിലെ കുക്കല്ലേ ആ സാറെ ഞാൻ നെക്സ്റ്റ് വീക്ക് അവിടേക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ബ്രേക്ഫാസ്റ്റ് തൊട്ട് എല്ലാം തന്നെ വേണം അപ്പോൾ നിങ്ങളുടെ ബ്രേക്ഫാസ്റ്റ് ഐറ്റംസ് എന്തൊക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടീട്ട് വിളിക്കുന്നത് ആയിരുന്നു

പറ്റുവല്ലെ ആ അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത് പേരുടെ അടുത്തുണ്ടാവും അവർക്ക് പറ്റിയ ആ അവർക്കെല്ലാർക്കും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിവരും അപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ആ ഓക്കെ ആ അ അ അ അ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കായിരിക്കും എത്തുക

ഡേയ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് വീക്കെന്നെ പറഞ്ഞിട്ടുള്ളു ഡെയ്റ്റ് കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ പറയാം അത്

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ മനസ്സിലായി ആ ശരി ആ ഓക്കെ അപ്പോൾ ഞാൻ അവരുടെ എല്ലാവരുടെയും കൂടെയൊന്ന് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അതായിരിക്കും ബെറ്റർന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമ്മുടെ മാത്രം അഭിപ്രായം പറഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഇത് ചോദിച്ചിട്ട് ചെയുന്ന ആയിരിക്കുമല്ലോ ബെറ്ററ് ഓക്കെ ആ എന്നാൽ ഞാൻ എന്തായാലും ചോദിക്കാം ഏകദേശം ബഡ്ജറ്റൊക്കെ എത്രയൊക്കെ വരാൻ പെർ ഹെഡിന് ആ ഓക്കെ എന്നാൽ ഞാൻ എന്തായാലും ഐറ്റംസ് പറയുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് തന്നാൽ മതി ഓക്കെ എന്നാൽ